സൈബു ഹലോ ആ സൈബുവല്ലേ ആ പിന്നെയെനിക്ക് വീട് വേണമായിരുന്നു വാടകക്ക് ആ ഹാ ഇജ്ജ് ടൗണിലൊക്കെയായാൽ ആ ഒരു പത്ത് പതിനഞ്ചിലൊക്കെ നിൽക്കണം അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല യാത്ര സൗകര്യമൊക്കെ വേണം പിന്നെ അത്യാവശ്യം ആ കാർ കയറണം പിന്നെ അത്യാവശ്യം വഴിയിലേക്കൊക്കെ എല്ലാം മൂന്ന് മുറിയും അറ്റാച്ച്ഡ് ബാത് റൂമൊക്കെ വേണം പിന്നെ ഇച്ചിരി ഏരിയാവൊക്കെ വേണം ആ എല്ലാറ്റിലും വേണമെന്നില്ല പിന്നേ പള്ളിയൊക്കെ പള്ളിയിലൊക്കെ പള്ളിയിൽ വാർത്തത് വേണമെന്നില്ല നമുക്ക് സാമാന്യം ഭേദപ്പെട്ടൊരു വീട് മതി പിന്നേ പള്ളിയും സ്കൂളുമൊക്കെ അടുത്തുള്ളതൊക്കെയായിരിക്കണം ഇച്ച് ടൗണിലായിട്ടു വേണം നമുക്ക് ഉം ആ ഹാ ആ

പാടായിരിക്കും ആണോ അപ്പോൾ നമുക്ക് ഇച്ചിരി ടൗണിലോട്ടും പോകാം സൗകര്യമുണ്ടാകണം ആ നമ്മളത് ചങ്ങനാശ്ശേരി ടൗണിലാണ് അപ്പോൾ പാറേപ്പള്ളിക്കടുത്തായിട്ട് പോകുന്ന രീതിയിൽ വേണം നമുക്ക് സ്കൂളും പള്ളിയൊക്കെ സൗകര്യമുള്ള സ്ഥലം വേണം ഉം പിന്നേ ആ ഹാ ആ എന്നാലും യാത്രാസൗകര്യം ഉണ്ടേ നമുക്ക് കുഴപ്പമേയില്ല ഇച്ചിരിയുള്ളിലാണെങ്കിലും യാത്രാസൗകര്യം ആ വണ്ടിയുണ്ട് വണ്ടിയുണ്ട് വണ്ടി കയറണം ആ ഇല്ലായില്ലായില്ല ആ ആ ആ എന്നാലും അത്യാവശ്യം നമുക്ക് ബസ്സിനു പോകണമെന്നുണ്ടെങ്കിൽ വഴി സൗകര്യം വേണം ആ ആ ഹാ വേണം പിന്നെ വേനലിൽ വെള്ളവും അങ്ങനെ ഉള്ള കാര്യങ്ങൾ എല്ലാം വേണം അതിനൊന്നും ബുദ്ധിമുട്ട് വരരുത് ആ വേണം വേണം വേണം കിണർ എല്ലാം മുനിസിപ്പലും വേണം കിണറുണ്ടെങ്കിൽ നല്ല കാര്യം രണ്ടും നമുക്കുപയോഗിക്കാമല്ലോ മ്മ് മ്മ് മ്മ്

ആ നമുക്ക് താമസിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും റെഡിയാക്കാൻ പറ്റുന്നതാണെ നമുക്ക് കുഴപ്പവുമില്ലല്ലോ നമുക്കെടുക്കാം ആ ഹാഹാഹാഹാഹാ പിന്നെ ലോക്കാലിറ്റിയൊക്കെയാണെങ്കിലും നമുക്കുമൊക്കെ ചേരുന്ന രീതിയിലുള്ള ക്രിസ്ത്യൻ ലൊക്കാലിറ്റിയൊക്കെയായിരി ക്കും നല്ലത് ആ ആ ഹാ ആ വിളിക്കണം വിളിക്കണം ഹും ഹും ആ ഹാ ഹാ ഹാ ഹാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതു കുഴപ്പവുമില്ല ആ ഹാ ഹാ അതു കുഴപ്പവുമില്ല നമുക്ക് മാനേജ് ചെയ്യാം ആ അതു കുഴപ്പവുമില്ല കുഴപ്പവുമില്ല നമ്മുടെയൊക്കെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പക്കയായിട്ട് നോക്കിക്കോളാം അതൊന്നും പ്രശ്നവുമില്ല ആ നമുക്ക് നഷ്ടമൊന്നും വരാത്ത രീതിയിലൊക്കെ നമ്മൾ നോക്കിക്കോളാം ഉം മ്മ് മ്മ് ആ ഹാ ആ ആ അറിയിക്കണം അറിയിക്കണം മ്മ് ആ ഹാ ഹാ മ്മ് ആ ശരി ഓക്കേ